രണ്ടു ലക്ഷത്തി മുപ്പതിനായിരത്തി ഇരുന്നൂറ്റി അൻപത് ഒൻപത് ലക്ഷത്തി അറുപതിനായിരത്തി മുന്നൂറ്റി പത്തൊൻപത് എട്ട് ലക്ഷത്തി എൺപതിനായിരം നാലായിരത്തി ഇരുന്നൂറ്റി എൺപത് എട്ടായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ച്